ഇപ്പോഴത്തെ ട്രെക്കിംഗ് സ്പോർട്ട് ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഇതാകും കാരണം പ്രകൃതിയെ സംരക്ഷിക്കണ്ടവരുതന്നെ പ്രകൃതിയെ നശിപ്പിക്കുന്നു എന്നൊരു തോന്നല് വരും കാരണം കുടിച്ച വാട്ടർ ബോട്ടിലുകള് വല്ല സ്നാക്ക്സ് ഇപ്പം എന്താ പറയുക ലെയ്സ് പോലത്തുള്ള സ്നാക് ഇത് ലെയ്സിൻറ്റെ പാക്കറ്റ്സ് പിന്നെ സിഗരറ്റ് പാക്കറ്റ്സ് അങ്ങനെ കുറേ മദ്യ കുപ്പികള് അതൊക്കെ നമുക്ക് ട്രക്കിംഗ് സ്പോട്ടില് കാണാൻ പറ്റും സത്യം പറഞ്ഞാല് അപ്പം അങ്ങനെ പരിസരം മലിനമാക്കാതെ നമ്മള് സംരക്ഷിക്കണം നമ്മള് അങ്ങനെ ഇടാതെ അത് ഒന്നൊരു ബാസ്കറ്റ് ഉണ്ട് കുറച്ച് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നാൽ ബാസ്ക്കറ്റുകൾ ഉണ്ട് അല്ലെങ്കിൽ ഒരുസ്ഥലത്ത് അവരുടെ നമ്മുടെ പഞ്ചായത്തിൽ പോയി പറയുകയാണെങ്കിൽ അവര് ഒരു ബാസ്കറ്റ് വെക്കുക അവിടെ നിക്ഷേപിക്കുകയാണെങ്കില് ഇങ്ങനെ ഇത് ഉണ്ടാവില്ല ഇത് ഒന്നും ഭൂമിയിലോട്ട് അടിഞ്ഞു പോകുന്ന സാധനങ്ങളൊന്നും അല്ല ഇങ്ങനെ നിക്കുമ്പോൾ ഭയങ്കര മാലിന്യങ്ങള് കുന്ന് കൂടുകയാണ് ചെയ്യുക അപ്പം അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മള് സംരക്ഷിക്കണം നമ്മള് സൂക്ഷിക്കണം ഓരോ വ്യക്തിയും സ്വയം തീരുമാനം എടുക്കണം അങ്ങനെ അലക്ഷ്യമായി വലിച്ചെറിയരുത് എന്ന് ഇത് ഇപ്പം എന്നും ഇപ്പം കയറുന്ന വഴിക്ക് ഒന്നും ഇല്ലാത്ത സ്ഥലം ആയത് കൊണ്ട് അങ്ങനെ ആൾക്കാര് കാണുന്നില്ല ട്രക്കിംഗ് സ്പോട്ട് അല്ലെ പക്ഷെ നമ്മള് അങ്ങനെ വലിച്ചെറിയുമ്പോൾ അത് അവിടെത്തന്നെ കിടക്കുകയാണ് ചെയ്യുക അങ്ങനെ ചെയ്യാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം